ഇന്നത്തെ കാലത്ത് യുവാക്കളുടെ തൊഴിലില്ലായ്മയെ കുറിച്ച് മീൻസ് തൊഴിലില്ലായ്മ വളരെയധികം കൂടുതലാണ് മീൻസ് ഓരോ കാറ്റഗറി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും തൊഴിലില്ലായ്മ എല്ലായിടത്തും വളരെ കുറവാണ് വരുന്നത് യുവാക്കൾക്കെന്ന് പറഞ്ഞാല് പ്രത്യേകിച്ചുമാണ് കാരണം എല്ലാവർക്കും നല്ല ക്വാളിഫിക്കേഷൻ നല്ല ഇതും ഒക്കെയുള്ള ആൾക്കാര് തന്നെയാണ് കാരണം ഇപ്പോള് മിനിമം നമ്മളുടെ ക്വാളിഫിക്കേഷനെന്നു പറയുന്നത് ഡിഗ്രിയാണ് അതുവരെ എല്ലാ മീൻസ് യുവാക്കൾക്കും ഉണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് പല ആൾക്കാരും പല ജോലിക്ക് അതായത് നമ്മളുടെ സാമ്പത്തിക കാര്യങ്ങളും അതുപോലെ തന്നെ വീടിൻ്റെ മീൻസ് വീട്ടിൻ്റെ വീടിൻ്റെ ഓരോ ഇതൊക്കെ ആവുമ്പോള് മീൻസ് ഫാമിലിയെ കുറിച്ചൊക്കെ വരുമ്പോള് കൂടുതൽ പിന്നെ സ്റ്റഡി ചെയ്യാതെ ചെറിയ ചെറിയ ചെറിയ ചെറിയ തൊഴിലുകൾക്ക് ഓരോരുത്തരും പോവാണ് അപ്പോള് എന്താണ് കോളിഫിക്കേഷൻ ഏതൊരു സ്ഥലത്ത് പോവാണെന്നുണ്ടെങ്കിലും കോളിഫിക്കേഷനാണ് ഫസ്റ്റ് അവർ ചോദിക്കുന്ന ഒരു മീൻസ് അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് അവര് ചോദിക്കുന്നത് ഈ എക്സ്പീരിയൻസ് എന്നു പറയാൻ ആദ്യം നമ്മളെ എക്സ്പീരിയൻസിനു വേണ്ടിയിട്ടെങ്കിലും ഒരു സ്ഥലത്ത് കയറാന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഇല്ലാതെ ഏത് സ്ഥലത്ത് പോവാണെന്നുണ്ടെങ്കിലും പറയുന്നത് എക്സ്പീരിയൻസ്ഡാണോ എക്സ്പീരിയൻസ്ഡാണോ വൺ ഇയർ എക്സ്പീരിയൻസ്ഡാണോ ഇതൊക്കെയാണ് ചോദിക്കുന്നത് ഒരു സ്ഥലത്തും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ കയറ്റുന്നില്ല അപ്പോള് അതിന് നമ്മൾ ആദ്യം ആക്കേണ്ടത് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടെങ്കിലും ഒരു സ്ഥലത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് എക്സ്പീരിയൻസ് ചോദിക്കാതെ എവിടെയും കയറ്റുന്നില്ല ഇപ്പോള് നഴ്സിങ്ങിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോള് ഞാനിവിടെ നഴ്സാണ് നഴ്സിങ്ങിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോള് ആരും നേഴ്സിങ് എന്നു മാത്രമല്ല ഏതൊരു മേഖലയാണെന്നുണ്ടെങ്കിലും ചുരുങ്ങിയത് നമ്മള് മീൻസ് ഇപ്പോള് ആരും കേരളത്തിൽ നില്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എല്ലാവരും പുറത്തേക്ക് പോകണം ആ ഒരു ചിന്താഗതിയാണ് അതിപ്പോള് നമ്മൾ നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെ അല്ലെങ്കില് നമ്മുടെ സ്വന്തം നാട്ടിൽ നില്ക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല ഇവിടുത്തെ സാലറിയും ഇവിടെ കിട്ടുന്ന റെസ്പെക്റ്റും ഒക്കെ വളരെ കുറവാണ് നഴ്സിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കില് തന്നെ നമുക്ക് കിട്ടേണ്ട മീൻസ് പേഷ്യൻസ് കെയറാണ് അവര് കൂടുതലായിട്ട് നോക്കുന്നത് ഡോക്ടർസിനെക്കാളും കൂടുതലായിട്ട് നമ്മുടെ പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്നത് നഴ്സുമാരാണ് പക്ഷേ എന്നാലും അതിൻ്റെ ഒരു റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒന്നും നഴ്സുമാർക്ക് കിട്ടുന്നില്ല സാലറി ആണെങ്കിലോ അതിനേക്കാൾ കുറവ് കാരണം പ്രൈവറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിനിമം വരുന്നത് പതിനഞ്ച് അല്ലേൽ പതിനഞ്ചും അല്ല ഒരു എട്ട് ഒൻപത് ആ ഒരു രീതിയിലാണ് പിന്നെ നമ്മൾ അത് പി എസ് സി എഴുതി ഗവൺമെൻറ്റ്ക്ക് എത്തുമ്പോഴത്തേന് പിന്നെയും കുറയും ഓക്കെ അപ്പോള് എവിടെ പോവാണെന്നുണ്ടെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ എടുക്കുന്നില്ല അതുപോലെതന്നെ എന്താണ് ഇതിന് നമ്മളെ മീൻസ് സർക്കാര് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മള് എന്താണ് എക്സ്പീരിയൻസിനു വേണ്ടിയിട്ടെങ്കിലും ഒരു സ്ഥലത്തു കയറാൻ വേണ്ടിയുള്ള ആദ്യം കൊടുക്കുക അല്ലാതെ നമ്മള് എക്സ്പീരിയൻസ്ണ്ടോ എക്സ്പീരിയൻസ്ണ്ടോ എന്ന് ചോദിച്ചിട്ട് എക്സ്പീരിയൻസിന് പോലും ഒരു സ്ഥലത്ത് കയറ്റാതെ ആ ഒരാളെ ഒഴിവാക്കുന്നതിന് പകരം ഒരു സ്ഥലത്ത് കയറ്റിയിട്ട് പിന്നീട് എക്സ്പീരിയൻസ് ആവുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാല് എല്ലാവർക്കും മീൻസ് യുവാക്കളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നേഴ്സിങ്ങിലാണെങ്കിൽ തന്നെ യുവാക്കൾക്കിപ്പോള് തീരെ അതൊരു കേരളത്തിലെ നമ്മളെ കേരളത്തിലെ യുവാക്കക്ക് മീൻസ് മെയിൽ നഴ്സുമാർക്ക് തീരെ ഒരു വിലയില്ല എല്ലാവരും ഒഴിവാക്കുകയാണ് മെയിൽ നഴ്സുമാരെ അപ്പോള് കൂടുതലും മെയിൽ നേഴ്സുമാരാണെന്നുണ്ടെങ്കിലും കൂടുതൽ പുറത്തേക്ക് പോവാനുള്ള ഇതാണ് നോക്കുന്നത് അപ്പോള് ഇതൊക്കെയാണ് കൂടുതലായിട്ടും പറയാനുള്ളത്